ഹലോ ഹലോ അതെ അതെ റേഷൻ കടയാ റേഷൻ കടയാ ഇത് റേഷൻ കടയാ ആ ആ ഇത് അഞ്ചലുള്ള റേഷൻ കടയാണെ

ആ മാഡം പഞ്ചസാരയും എണ്ണയും ഡാലും ഒക്കെ വന്നല്ലോ കഴിഞ്ഞ ഈ ഈ ആഴ്ചത്തെ വന്നു ഇന്നിപ്പം ഇന്ന് ഇന്നുംകൂടെ ഒക്കെ കൊടുത്ത് കാണത്തുള്ളൂ കേട്ടോ പിന്നെ അല്ല ഈയാഴ്ച ലാസ്റ്റ് ഡേ ആയില്ലേ മാഡം അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വന്ന് വാങ്ങിക്കണമേ ആ ആരെങ്കിലും വിട്ടാൽ ആരെങ്കിലും വിട്ടാൽ പോരാ അങ്ങ് അവിടെ റേഷൻ കാർഡിൽ പേരുള്ള ആരെങ്കിലും വന്നാൽ മതി നമുക്കിവിടെ കയ്യിൽ വിരൽ പതിപ്പിക്കണമല്ലോ അതുകൊണ്ട് വീട്ടിൽ ആരെയെങ്കിലും ആവുന്നവരുണ്ടെങ്കിൽ അവരെ വിട്ടാലും മതി ഇപ്പോൾ നമുക്ക് ഏത് റേഷൻ കടയിലും സാധനം വാങ്ങിക്കാമല്ലോ പഞ്ചസാരയ്ക്ക് ഒക്കെ മാഡം പഞ്ചസാര അറുപത് രൂപ ഡാലിന് നാൽപ്പത് രൂപ ആ പിന്നെ എന്താണ് വേണ്ടത് റേഷൻ കട ഈ സർക്കാർ നമ്മളോട് പറയുന്ന വിലയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ അല്ലല്ലോ ഇതിൻ്റെ പുറത്ത് വില ഇടുന്നത് അത് ഗവൺമെൻ്റ് സപ്ലൈ അല്ലേ അവർ പറയുന്ന വില നിങ്ങൾക്ക് തരുന്നു എന്നേയുള്ളൂ മാഡം കടകളിലുള്ള വില മാഡം മാഡം നിങ്ങൾക്ക് കമ്പ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമ്പ്ലൈൻ്റ് കൊടുക്കാമല്ലോ ഞാൻ ഇവിടെ സർക്കാർ തന്നേക്കുന്ന സാധനം വിതരണം ചെയ്യാനിരിക്കുന്നു നിങ്ങൾ അവിടെ നിങ്ങൾ ഇതിൻ്റെ സപ്ലൈക്കോ ഓഫീസിൽ വിളിച്ചു നിങ്ങൾ കമ്പ്ലൈൻ്റ് പറയൂ ഞങ്ങൾ ബ്ലാക്ക് കരിഞ്ചന്ത നിങ്ങളുടെ എല്ലാം ധാരണ നിങ്ങളുടെ എല്ലാം ധാരണ അങ്ങനെയാണ് ഞങ്ങൾ അധിക അരിയും സാധനവും ഒക്കെ ബംഗാളികൾക്ക് മറിച്ചു വിൽക്കുന്നു എന്നുള്ള ഒരു ധാരണയാണ് നിങ്ങൾക്കുള്ളത് അപ്പം നിങ്ങൾ വന്ന് നോക്ക് നിങ്ങൾക്ക് ശരിയായ ഇത് നിങ്ങളുടെ കൈയിൽ വ്യക്തമായിട്ട് കണ്ടതിനുള്ള തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവന്ന് നിങ്ങൾ കേസ് കൊടുക്കൂ ഞാൻ ഇവിടെ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് നിങ്ങളെയൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തോളൂ മാഡം മാഡം ഞാൻ പറയുന്നത് കേൾക്കണം മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ബിസിനസ് ചെയ്യുവാണ് ഞാൻ ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലം മുതലേ മാറി എനിക്കിടെ പേരിൽ ഇപ്പോൾ വന്നതാണ് ഇന്നുവരെ ഒരാൾ പോലും എനിക്കെതിരെ ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഞാൻ അഭിമാനത്തോടെ പറയാം നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തോളൂ മാഡം നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ റേഷൻ കടയിൽ വരേണ്ട നിങ്ങൾക്ക് ഏത് റേഷൻ കടയിൽ പോയാലും സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ ഈ റേഷൻ കടയിൽനിന്ന് മാത്രമേ എങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇപ്പോൾ ആദ്യം എടോ ഞാൻ എന്നെ ചോദ്യം ചെയ്യാനും എൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യേണ്ട അധികാരവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് തെളിവ് വേണം തെളിവുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം വരൂ നിങ്ങൾ നിങ്ങൾക്ക് ഒട്ടും വയ്യാതിരിക്കുകയാണെന്ന് നിങ്ങൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് വയ്യാതിരിക്കുകയാണെന്ന് വയ്യാതിരിക്കുന്ന ആൾ നിങ്ങൾക്ക് മറ്റൊരാ അത് മറ്റൊരാൾ പറഞ്ഞുള്ള അറിവല്ലേ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ അല്ലാതെ നിങ്ങൾ കണ്ട അറിവ് ഉണ്ടാവത്തില്ല ഇല്ലല്ലോ വ്യക്തിപരമായ കാര്യം ഉള്ള ഒരാൾ എൻ്റെ കടയിൽനിന്ന് സാധനങ്ങൾ മാറ്റുന്നു എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു വിവരാവകാശ നിയമത്തിൽ നിങ്ങൾ കേസ് കൊടുക്കാൻ ആദ്യമേ അത് നിങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്നാലും എനിക്ക് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ ആ മാഡം ഞായറാഴ്ച കട തുറക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കും സർക്കാർ പോലും ഞായറാഴ്ച എല്ലാവർക്കും അവധി തന്നേക്കുവാണ് പിന്നെ അതുകൊണ്ട് ഞായറാഴ്ച കട അവധിയാണ് അല്ല നിങ്ങളിനി അതിന് ഇത് വിവരാവകാശ കമ്മീഷനിൽ പോയാലും ഞാൻ തുറക്കത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് കമ്പ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് വാ എന്നതിനു ശേഷം എൻ്റെ കടയ്ക്ക് എന്തെങ്കിലും ആ കുഴപ്പം ഇല്ലാ എന്ന് കാണുന്നെങ്കിൽ മാത്രം നിങ്ങൾ സാധനം വാങ്ങിക്കാൻ വന്നാൽ മതി മാറിമാറി വരുന്ന ഭരണ ഭരണകൂടങ്ങൾ തരുന്ന വിലക്കാണ് ഞങ്ങൾ ഇവിടെ മാഡം നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ഏത് റേഷൻ കടയിലും പോയി ചോദിച്ചുനോക്കൂ നിങ്ങളുടെ മാഡം നിങ്ങൾ എൻ്റെ റേഷൻ കടയിലെ വില മാത്രം അന്വേഷിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തുള്ള ഈ കേരളത്തിലുള്ള മൊത്തം റേഷൻ കടയുടെയും വില അന്വേഷിച്ചോളൂ എന്നിട്ട് ഏതെങ്കിലും കടയിൽ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ വന്ന് കമ്പ്ലൈൻ്റ് പറയൂ എല്ലായിടത്തും കൊടുക്കുന്നത് ഇതേ വിലയ്ക്ക് ആണെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി അന്വേഷിക്കൂ ഡാലിന് അതിനു തരുന്ന റേറ്റ് കുറച്ച് നാൽപ്പത് രൂപയാണ് അത് സർക്കാറ് തന്ന വിലയാണ് അത് ചിലപ്പോൾ കടകൾ കടക്കാരും മുപ്പതെ തരുന്നുള്ളൂ അതിന് തരണം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ വീട്ടിൽനിന്ന് എടുത്തോണ്ട് വെച്ചേക്കുന്ന സാധനം അല്ല മേടം ഓക്കെ ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ വെച്ച് കാണാം ആ ഓ ഓക്കെ നിങ്ങളുടെ ആ ഓക്കെ അടുത്ത ഞായറാഴ്ച തുറക്കത്തില്ല ഒരു കാര്യം കൂടി നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അതുംകൂടെ കൊണ്ടുവന്നോളു മേടം ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ഞാൻ അതിൽ